പതിനാറ് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഏഴ് എട്ട് രണ്ടായിരം ഒന്ന് നാല് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പതിനാറ് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇരുപത് നാല് ആയിരത്തിത്തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് പത്തൊമ്പത് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച്